പഴയ വസ്ത്രരീതികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്നത്തെ ഫാഷനിൽ മാറ്റം വന്നിട്ടുണ്ട് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് പണ്ടത്തെ കാലത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങള് ഓരോ മതത്തിൻ്റെ അടിസ്ഥാനത്തിലും വ്യത്യാസമായിരുന്നു മുസ്ലീങ്ങളുടെ ആണേലും ഹിന്ദുസിൻ്റെ ആണേലും ക്രിസ്ത്യൻസിൻ്റെ ആണെലും അതും കൂടാതെ നമ്മുടെ സംസ്കാരം നാടിൻ്റെ സംസ്കാരത്തിന് ചേർന്ന വിധം വസ്ത്രങ്ങൾ ധരിക്കുന്നവരും ആയിരുന്നു പണ്ട് ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ പാശ്ചാത്യ വസ്ത്ര രീതികളാണ് കൂടുതലും എല്ലാ മനുഷ്യരെയും സ്ത്രീകളെ ആയാലും പുരുഷന്മാരെ ആയാലും സ്വാധീനിച്ചിരിക്കുന്നത് അതായത് പണ്ട് സ്ത്രീകൾ കൂടുതലും നമ്മുടെ കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കില് കേരളീയ വസ്ത്രങ്ങളായ സെറ്റ് മുണ്ട് സാരി ദാവണി പാവാടയും ബ്ലൗസും അങ്ങനെയൊക്കെയുള്ള വസ്ത്രങ്ങൾ സ്ത്രീകൾ ധരിച്ചിരുന്നു പുരുഷന്മാർ ആണെങ്കിലും മുണ്ട് വേഷ്ട്ടി ജുബ്ബ പോലെയുള്ള ഉടുപ്പ് പിന്നെ ക്രിസ്ത്യൻ രീതിയിൽ ആണെങ്കില് ചട്ടയും മുണ്ടും മുസ്ലിമുകളുടെ രീതിയിലും പർദ്ദ ധരിക്കുന്നവര് അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തില് ഇന്നിപ്പോൾ അതെല്ലാം മാറിയിട്ട് കൂടുതലും ഫ്രീ ആയിട്ട് മനുഷ്യന് നന്നായിട്ട് ഫ്രീ ആയിട്ട് നടക്കത്തക്ക രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിച്ചു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന വസ്ത്രങ്ങൾ ആണെങ്കിലും ചുരിദാർ സാരി എന്നീ രണ്ട് ഡ്രസ്സുകൾ ആണ് എനിക്ക് ഏറ്റവും നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങള് ചുരിദാർ ആണെങ്കിലും നല്ല രീതിയില് നമുക്ക് ശരീരത്തില് ലൂസ് ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും ശരീരങ്ങൾ ഭാഗം മുഴുവൻ മറഞ്ഞു കിടക്കുന്ന ഡ്രസ്സ് ആയിരിക്കും സാരി ആണെങ്കിലും ഉടുത്ത് കഴിഞ്ഞാല് നല്ലൊരു ഭംഗി തോന്നത്തക്ക രീതിയിൽ ഒര് ട്രഡീഷണൽ അതായത് പാരമ്പര്യമായിട്ട് നമ്മുടെ സംസ്കാരത്തിന് ഉതകുന്ന രീതിയില് നമ്മളുടെ നമ്മുടെ സംസ്കാരം എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആര് ആരെയും ആകർഷിക്കുന്ന ഏത് തരത്തിലുള്ളവര് ശാരീരിക ഷെയ്പുകൾ ഉള്ളവര് ഉടുത്താലും നന്നായി ഇണങ്ങുന്ന രീതിയില് എല്ലാവർക്കും ഇഷ്ടം തോന്നും സാരി എന്ന ഡ്രസ്സിനോട് പാവാടയും ബ്ലൗസ് ഒക്കെ ആണേലും ഇടുന്നത് നല്ല ഒരു അതായത് നമ്മുടെ ശരീരത്തിന് നമ്മുടെ ശരീരത്തിൻ്റെ ആകൃതിയനുസരിച്ച് ഷേപ്പ് അനുസരിച്ച് ഇടാൻ ആയിട്ട് നമുക്കത് സാധിക്കും നമ്മൾ വാങ്ങുന്നത് കടകളിൽ അതായത് ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ നിന്നും വാങ്ങി ആണ് നമ്മള് വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് പിന്നെ ഇന്ന് എല്ലാ തരത് ഏത് ഏജിൽ ഉള്ള ഏത് പ്രായക്കാരും ഉള്ള ഡ്രസ്സുകള് ചുരിദാറ് ഉപയോഗിക്കുന്നുണ്ട് പണ്ടത്തെ രീതിയിൽ നല്ല പ്രായമുള്ളവർ ധരിക്കുന്ന ഡ്രസ്സുകൾക്ക് പ്രത്യേകതയുണ്ടായിരുന്നു അവർ ചെറുപ്പക്കാര് ഉപയോഗിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളൊന്നും ഉപയോഗിക്കാറ് ഇല്ലായിരുന്നു അതായത് നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള ഡ്രസ്സ് ചെയ്യുന്ന ഒരു രീതി അന്ന് പണ്ടത്തെ കാലത്തുണ്ടായിരുന്നു ഇപ്പോഴ് അങ്ങനെയൊന്നുമില്ല ഏത് തരത്തിലുള്ള ഡ്രസ്സും ഏത് ഫാഷനും ഏത് പ്രായക്കാരും ഉപയോഗിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ കാണുന്നുണ്ട് ആൺകുട്ടികളാണെങ്കിലും പാൻ്റും ഷർട്ടും ഒക്കെ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് ഇറക്കം കുറഞ്ഞ നിക്കറുകള് അതായത് ബനിയൻ സെറ്റുകള് ഇതൊക്കെയാണ് ഇപ്പം കൂടുതല് ഉപയോഗിക്കുന്നത് പലതരത്തിലുള്ള പലതരത്തിലുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കുന്നത് തുണികള് അതായത് സിന്തറ്റിക്കു അതായത് കോട്ടൺ തുണികളും പോളിസ്റ്റർ അങ്ങനെയുള്ള പലതരത്തിലുള്ള തുണികൾ ഉപയോഗിക്കാം നമ്മുടെ കാലാവസ്ഥക്ക് അനുയോജ്യമായി നമ്മൾ ഉപയോഗിക്കുക കോട്ടൻ ഡ്രസ്സുകളാണ് കോട്ടൺ തുണിത്തരങ്ങളാണ് നമ്മള് കൂടുതലും ഉപയോഗിക്കുന്നത് അത് നമ്മുടെ ശരീരത്തിന് നന്നായിട്ട് യോജിക്കുന്നതും എല്ലാ രോഗങ്ങളിൽ നിന്നൊക്കെ കാത്തു കാക്കുന്നതിന് സംരക്ഷിക്കാനും ഒക്കെ ഈ കോട്ടൻ തുണികൾ നമ്മൾ ഉപയോഗിക്കുന്നു തൊലി പുറത്തുണ്ടാകുന്ന എല്ലാ രോഗങ്ങള് ചൂടിനെ നിലനിർത്താനും ഒര് നമുക്ക് ചൂട് അനുഭവപ്പെടാത്ത രീതിയിലൊക്കെ കോട്ടൻ തുണികൾ ഉപയോഗിക്കാൻ ആയിട്ട് നമ്മള് ശ്രമിക്കാറുണ്ട് പിന്നെ ചുരിദാറ് നല്ല ഒരു വേഷമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് എനിക്ക് കൂടുതൽ യാത്ര ചെയ്യാൻ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നന്നായിട്ട് കംഫർട്ട് ആയിട്ട് നമുക്ക് അതായത് നല്ല രീതിയിൽ നമ്മളെ ഒര് സുരക്ഷിതത്വം നമുക്ക് തോന്നാറുണ്ട് ഈ ഡ്രസ്സ് ഇട്ട് നടക്കുമ്പോഴ് സാരി ഉടുക്കുന്നതിനെക്കാളും പക്ഷേ ഡ്രസ്സ് ഇടുമ്പോൾ കാണാനുള്ള ഭംഗി കൂടുതലും സാരി ഉടുക്കുമ്പോഴാണ് നമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്